പന്ത്രണ്ടാം ക്ലാസിന് ശേഷമാണ് ഞാന് പാചക ക്ലാസുകളിൽ ചേരാന് തുടങ്ങിയത് ലളിത എന്ന് പറഞ്ഞ സ്ത്രീയാണ് എന്നെ പഠിപ്പിച്ചത് അവിടെ എന്നെക്കൂടാതെ കുറെ കുട്ടികളും അവിടെ ചേര്ന്നിരുന്നു അവരെ നല്ല രീതിയിലാണ് ഞങ്ങള്ക്ക് പാചകക്കുറിപ്പുകളെക്കുറിച്ച് പഠിപ്പിച്ചത് അത് വളരേയധികം നല്ലൊരു ക്ലാസായിരുന്നു പങ്കെടുത്ത ചിലവര്ക്ക് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അവര് കൊടുത്ത കാശിനനുസരിച്ചല്ല അവര്ക്ക് ഭക്ഷണം വീട്ടിലേയ്ക്ക് കൊണ്ടു ഉണ്ടാക്കിയ ഭക്ഷണം വീട്ടിലേയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമായിരുന്നു അവിടെയുണ്ടാരുന്നതില് വെച്ചേറ്റവും വലിയ പ്രശ്നം പാചക ക്ലാസുകള് നടത്തുന്ന സമയത്ത് ആത്മവിശ്വാസവും വളരെയധികം വിശദീകരിക്കാവുന്ന് തരത്തിലാണ് ഗടകങ്ങളും ഉള്ളതാണ് ഈ പാചക ക്ലാസുകള് അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ആള്ക്കാര്ക്കും വിദ്യാര്ത്ഥികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാന് പറ്റണം എന്നതാണ് എന്റെ മെയിനായിട്ടുള്ള ഒരു ആവിശ്യമെന്ന് പറയുന്നത് പാചകത്തിലൂടെ പല തരത്തിലുള്ള വൈരുധ്യങ്ങളും നമുക്ക് മെച്ചപ്പെടുത്താന് സാധിച്ചു പാചക ക്ലാസുകള് പ്രൊഫഷണല് പാചകക്കാരില് നിന്നോ അല്ലെങ്കില് ഇന്സ്ട്രക്റ്റര്മാരില് നിന്നോ നേരിട്ടുള്ള അനുഭവങ്ങളും മാര്ഗ നിര്ദേശങ്ങളുമാണ് അവര് നമുക്ക് നല്കിയിര്ന്നത് പല തരത്തിലുള്ള പാചക രീതികള് നമ്മളെ പഠിപ്പിക്കാന് അവര് വളരെയധികം രീതിയില് ശ്രമിച്ചിരുന്നു ഓരോ ഓരോ വസ്തുക്കളും ഓരോരോ പുതിയ പുതിയ പാചക രീതികളും നമുക്ക് വളരേ നല്ല രീതിയിലായിരുന് അവര് നമുക്ക് തന്നിരുന്നത് സര്ഗാത്മകമായ പല കാര്യങ്ങളും പാചക ക്ലാസുകളില് പലപ്പോഴും അടുക്കളയില് വളരെയധികം പ്രോത്സാപ്പിച്ചിര്ന്ന ഒന്നായിരുന്നു പുതിയ തരത്തിലുള്ള വ്യത്യസ്ത രീതീയൊള്ള ചേരുവകളും ആ ചേരുവകള് ചേരുമ്പോഴുണ്ടാവുന്ന പല വ്യത്യാസങ്ങളും ഭക്ഷണത്തിലെ കുറിച്ച് വളരെയധികം നന്നായിയായിരുന്നു എനിക്ക് പാചക ക്ലാസില് നിന്ന് ലഭിച്ചത് ഇത് പരീക്ഷിച്ച് നോക്കാനും ആ പാചകം എന്ന് പറയുന്ന കലയോട് വളരെയധികം ഇഷ്ടപ്പെടുത്തുവാനും ഇത് നമ്മളെ ആകര്ഷിച്ചു തന്നെ പറയാം